ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു വിനോദ പ്രവർത്തിയായിട്ടും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഒരു തൊഴിലായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ രണ്ടിലും നമ്മൾക്ക് വേണ്ടത് ഒരു ഉത്തരവാദിത്വമാണ് കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിലെ മികച്ച ഒരു ഇത് നമുക്കുണ്ടാക്കാൻ കഴിയണം നമ്മൾ ഉത്തരവാദിത്വത്തോടെ അത് ചെയ്യണം കാരണം പെർഫെക്ഷനാണ് അതിൽ മെയിനായിട്ട് വേണ്ടത് നമ്മൾ കാര്യങ്ങളിപ്പോൾ ഒരു വെറുതെ ഒരു ഫോട്ടോ എടുക്കുകയെന്നുള്ള ഉദ്ദേശത്തിൽ എടുക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്നതിൽ കൃത്യതയും മികച്ച ഒരു ഫോട്ടോ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് തന്നെയാണ് വേണ്ടത് അതുപോലെ പിന്നെ നമ്മളിത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം അല്ലാതെ നമ്മളൊരു എന്താ പറയുക പൈസയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോഗ്രഫി യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മൾ നമ്മളുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം കൊണ്ട് ഇതിനെ ചെയ്യണം എന്നാലായിരിക്കും കൂടുതൽ മികച്ച ഫോട്ടോസ് നമുക്കെടുക്കാൻ കഴിയുക അല്ലാതെ പൈസയ്ക്ക് വേണ്ടി ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യാൻ പാടില്ലയെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മളീ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളീ തൊഴിലിലേർപ്പെട്ടാൽ നമുക്ക് ആസ്വദിക്കാനും മുൻപോട്ടു പോകാനും കഴിയും എന്നാണ് എനി എനിക്കിതിൽ പറയാനുള്ളത്